എനിക്ക് ഇന്ത്യയിൽ എഴുതാൻ പാടില്ലെന്ന് കരുതുന്ന സെൻസിറ്റീവ് വിഷയങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഈ ന്യൂസ് പേപ്പറുകളിലൊക്കെ അതായത് ന്യൂസ് പേപ്പറിൽ എഴുതുന്ന ആൾക്കാരൊക്കെ പിന്ന കുറേ പേര് ഇങ്ങനെ അതായത് എഴുത്തുകാർ ഉണ്ടാവുമല്ലോ ന്യൂസ് പേപ്പർ അപ്പോൾ അവരൊക്കെ ചിലപ്പോൾ ഒരു ന്യൂസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ കുറേ പെരുപ്പിച്ചിട്ടൊക്കെയായിരിക്കും എഴുതുക പക്ഷേ അത് കാര്യം കാര്യമായിട്ടായിരിക്കില്ല അവർ അറിഞ്ഞതിലും വളരെ കൂടുതലാക്കി എഴുതും പിന്നെ അത് ചിലപ്പം പിറ്റേദിവസം അത് മാറ്റി വേണമെങ്കിൽ ഒരു വാർത്തയാക്കും അങ്ങനെയുള്ളതൊക്കെ എനിക്ക് എഴുതാൻ പാടില്ല എന്ന് തോന്നിയിട്ടുണ്ട്